ഹലോ മാലിന്യ മാനേജ്മെൻ്റ് അഥോറിറ്റി അല്ലേ ഞങ്ങൾ ഇവിടെ ബാർബിക്യൂ പാർട്ടി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭക്ഷ്യ മാലിന്യ ശേഖരണം കുറച്ചായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് നിക്ഷേപിക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വന്നു ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതോ അല്ലെങ്കിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കണോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിൽ വന്നു എന്തെങ്കിലും ചെയ്തു തരുമോ അതിന് ഞങ്ങൾ അപേക്ഷിക്കണോ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്

ഓ അപ്പം നിങ്ങൾ വീട്ടിൽ വന്നു ചെയ്യുമല്ലേ

ആ